ഹലോ എന്തോ ആ എന്നാ മോളെ

ഇഷ്ടമാണോ പഠിക്കാൻ പഠിക്കാൻ ഇഷ്ടമാണോ ആ അതിനെന്നാ കൊച്ചിന് പഠിക്കാല്ലോ കൊച്ചിന് താല്പര്യമുണ്ടേൽ പഠിക്കാമല്ലോ നല്ലതാണ് നല്ലൊരു കലാരൂപമല്ലേ കഥകളി മ്മ് കുറേ ആ കുറേ നാളുകൾ നമ്മൾ പഠിക്കണ്ടി വരും കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ മാസങ്ങളോളം പഠിക്കേണ്ടിവരും നമ്മുടെ കഴിവ് അനുസരിച്ചിരിക്കും ചിലർ പെട്ടെന്ന് പഠിച്ചു തീർക്കും ഓരോ കാലയളവ് അനുസരിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ എന്തോ ആ ഇത് പെട്ടെന്ന് പഠിക്കും മ്മ് ആ അതെ അതെ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ മ് പിന്നെ അതിന് ഡ്രസൊക്കെ നമുക്കറിയാല്ലോ അല്പം ചില കൂടിയ വിഭാഗമാണ് കഥകളി ഡ്രസ്സും ഒക്കെ അങ്ങനെയാണ് ഒരു മാസം ഒരു പതിനായിരത്തോളം രൂപ അതിന് ചിലവാകും

ആ പതിനായിരം രൂപയോളം ഒക്കെ ചിലവാകും ആ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കലാരൂപാണ് നമുക്കത് പഠിക്കാം മ്മ് ആ പിന്നെ ധാരാളം പിള്ളേര് വരുന്നുണ്ട് അവരുടെ കൂടെ ആ ആ അതെ അതെ ആ അല്ലല്ല ഓരോരുത്തരും വരുമ്പോൾ അവർക്ക് പ്രത്യേകം പ്രത്യേകം പ്രത്യേകം കൊടുക്കും ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്ത് വരുന്നവരെ അത് ഇപ്പം തന്നെ പുതിയ ബാച്ചിലേക്കൊരു പത്തോളം പിള്ളേരുണ്ട് ആ കൂട്ടത്തിൽ മോളെകൂടെ ഉൾപ്പെടുത്തി നമ്മൾ പുതിയ സെഷൻ ആ ഈ മാസം തന്നെ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് തുടങ്ങാം അറിയിക്കാം തീർച്ചയായിട്ടും അറിയിക്കാം മ്മ് കേട്ടോ ആ ആ സമയം ഈവനിങ് ക്ലാസുകളുണ്ട് ഈവനിങ് ക്ലാസുകളുണ്ട് ആ പിന്നെ നമുക്ക് ഓഫ് ദിവസങ്ങളിൽ കൂടുതൽ സമയം ക്ലാസ് വരും പിന്നെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏത് ഏതേലും സാംസ്കാരിക സമ്മേളനത്തോടൊപ്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കൊപ്പമൊക്കെ നമുക്ക് അതിൻ്റെ അരങ്ങേറ്റം ഒക്കെ നടത്താം പൊതുവായിട്ട് നടത്തി നമുക്ക് അത് ശരിയാക്കാം അല്ലല്ല നമ്മളെല്ലാവരും നമ്മൾ ഒരു ടീം ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ ഒരു പത്തോളം പിള്ളേര് ഉണ്ട് വന്നിട്ടുണ്ട് അവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് അവരുടേതായ ഒരു ഗ്രൂപ്പ് ഓരോ പ്രാവശ്യം പഠിക്കുന്ന ഓരോ സെഷൻ പിള്ളേരുടെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മ്മ് ആ ആ ആ അങ്ങനെ കുഴപ്പമില്ല മോളെ കുഴപ്പമില്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല തിരക്കൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ചോ മ്മ് ആ ആ വീട്ടിൽ ആരേലും ആ സുഖമായിട്ടിരിക്കുന്നു വീട്ടിൽ ആരെങ്കിലും കഥകളി പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്

ആണല്ലേ മ്മ് ഞാനോർത്തു ഇനി ഫാദറോ മതറോ ആരെങ്കിലുലോക്കെ കഥകളി ആർട്ടിസ്റ്റുകളാണോന്ന് ഓർത്തു പോയി മ്മ്

നല്ല കാര്യം പ്രോത്സാഹനം കിട്ടുന്നത് നല്ലതല്ലേ

ആ ആ ഞാൻ ഇങ്ങനെ താല്പര്യം കൊണ്ട് പഠിച്ചെടുത്തു അതുകഴിഞ്ഞ് എന്നെ കുറച്ചു പേരൊക്കെ അതിൻ്റെ അറിവ് കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചു അങ്ങനെ കഥകളി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു അങ്ങനെ കുറേ പേര് നാളുകളായി എന്തോ ആ ഞാൻ വർഷങ്ങളായി ഞാൻ പത്തുവയസ്സുള്ള സമയത്ത് മുതലേ പഠിച്ചു തുടങ്ങി ഇപ്പം വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു അരങ്ങേറി അതിനുശേഷം പെൺപിള്ളേരെ പഠിപ്പിക്കുന്നു ധാരാളം കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങുന്നുണ്ട് ആ നന്ദി ആ അതിന് തന്നെ വലിയ അഭിമാനമല്ലേ നിങ്ങളെ ഒക്കെ പഠിപ്പിച്ചു ഇറക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ടേൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം മ്മ് മ്മ് മ്മ് ഓക്കേ മ്മ് ആ ഓക്കേ ഓക്കേ എന്നാൽ